മലപ്പുറം ജില്ലയിലെ പ്രധാന ഉത്സവങ്ങള് എന്ന് പറയുമ്പം അത് ദേശിയ സാംസ്കാരിക ഉത്സവങ്ങളാകുന്നു മുസ്ലിം പെരുന്നാൾ ഉണ്ട് നിലമ്പൂർ പാട്ട് ഉണ്ട് പിന്നേ അമ്പലത്തിൽ പരിപാടികളുണ്ട് തിരുമാങ്ങളൊണ്ട് അമ്പലത്തിൽ പരിപാടി ഉണ്ട് ഓരോ എല്ലാം ആഘോഷങ്ങളും മലപ്പുറം ജില്ലയിലെ ഞങ്ങളു പ്രാധാന്യത്തോടു കൂടിയും ഭക്ഷമാണെങ്കിലും മുസ്ലിംസിൻ്റെ ആണെങ്കിലും കൂടുതലും ബിരിയാണിയും ഒമാനും നേർച്ചയുണ്ട് അതിനും ചോറും ബിരിയാണി ഉണ്ട് ചോറുണ്ട് പിന്നേ ഇസ് അമ്പലത്തിൽ ആണെങ്കിലും നല്ല വെജിറ്റബിള് ഫുഡ് സാമ്പാറ് ചോറ് കറികള് പായസം പപ്പടം ഇങ്ങനെ എല്ലാ ഇതും ഉണ്ട് മുസ്ലിംസിൻ്റെ ആണെങ്കിൽ ഇറച്ചി കാണും ഇനി ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും ഈ ഇറച്ചി ബീഫും അതും ഇതു ഒക്കെ തന്നെയാണ് എന്നാൽ നമ്മുടെ ഹിന്ദുക്കളുടെ ആണെങ്കിലും ഹിന്ദുസിൻ്റെ ആണെങ്കിലും നല്ല പപ്പടവും ചോറും നല്ല വെജിറ്റബിള് ഫുഡ് എല്ലാ സാംസ്കാരിക ഉത്സവ ദേശീയ ഉത്സവങ്ങളും മലപ്പുറം ജില്ലയിലെ എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാവരും അങ്ങോട്ടുമിങ്ങോട്ടും സഹകരിച്ചും ആഘോഷിക്കുന്ന ഒരു പ്രധാന സാം ഉത്സവങ്ങളാണ് മലപ്പുറം ജില്ലയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റൊരു സ്റ്റേ ജില്ലേനെ അപേക്ഷിച്ച് മലപ്പുറം ജില്ലയിൽ ഒരു കൂട്ടായ്മ ഉള്ളതാണ് ഇവിടെ ഹിന്ദു മുസ്ലിംസും ക്രിസ്ത്യാനികളും എല്ലാവരും ഒന്നിച്ച് ഒരു കൂട്ടായ്മയിൽ കൂടെ പോകുന്ന ഒരു ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല എല്ലായിടത്തും ഉണ്ട് എന്നാലും കൂടുതൽ ഒരു ആഘോഷങ്ങൾക്ക് ഒരു ഇത് വരുന്നത് മലപ്പുറം ജില്ലയിൽ കൂടുതലും ഒന്നിച്ച് വന്ന എല്ലായിടത്തും അതേ ഒന്നിച്ചു മുസ്ലിംസിൻ്റെ പരിപാടിക്ക് ആണേലും കുറച്ച് നെറച്ചു ചോറ് അവിടെ ആർക്കു വേണേലും പോകാം അതുപോലെ നിലമ്പൂർ പാട്ട് എല്ലാത്തിനും നല്ല ഇതുണ്ട് എല്ലാത്തിനും നല്ല ഫുഡും വെജിറ്റേറിയനും എല്ലാ ഇതും ഉണ്ട് നിലമ്പൂർ പാട്ടിനാണെങ്കിലും നല്ല ലാസ്റ്റ് പരി പരിപാടിക്ക് പാട്ടിൻ്റെ അന്നാണെങ്കിലും ഇഷ്ടം മാതിരി ചോറും വെജിറ്റബിൾ ബിരിയാണി പായസം എല്ലാം ഉണ്ട് അതുപോലെ മുസ്ലിംസിന്റേയും നല്ല ഇതില് ആഘോഷം ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല